അതേ എല്ലാവരും ശ്രദ്ധിച്ചേ നിങ്ങളുടെ എല്ലാവരുടെേയും പാസ്പോർട്ടിൻ്റെ എല്ലാം ക്ലിയറായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പം അത് ഇനി അവിടെ വെച്ച് മറന്നുപോവാതെ എല്ലാവരും ഓർക്കണം എല്ലാവരും കൃത്യമായിട്ട് എടുത്തുവെക്കുന്ന കാര്യം ഓർക്കണം പിന്നെ പാസ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമായില്ലല്ലോ നമുക്കതൊന്ന് എല്ലാവരും അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കണം നമുക്ക് ഫോട്ടോ കോപ്പി എല്ലാവരുടേയും ഒന്നോ രണ്ടോ എടുത്തു വെക്കണം കളർ കോപ്പി തന്നെ എടുത്തു വയ്ക്കാം ഇനി എന്തെങ്കിലും ആവശ്യം ആവശ്യത്തിന് വല്ലയിടത്തും കൊടുക്കേണ്ടി വന്നാലോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം കൃത്യമായിട്ട് വന്നു ഇനി നമ്മുടെ യാത്രയൊന്ന് നന്നായിട്ട് അവസാനിച്ചാൽ മതിയായിരുന്നു നല്ല ആഘോഷമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് പോയിട്ടു വരാമായിരുന്നല്ലേ പിന്നെ എല്ലാവരുടേയും എല്ലാം കൃത്യമായിട്ട് ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ എല്ലാവരുടെ പേര് കറക്റ്റാണെന്നും ഡേറ്റുകളൊക്കെ കറക്റ്റാണെന്ന് എല്ലാവരും ഒന്നുംകൂടി പരിശോധിച്ചു നോക്കണം പോകുന്നതിനു മുന്നേ എല്ലാം ഉറപ്പായിട്ട് അവിടെ ചെന്നുകഴിഞ്ഞ് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ കയറുന്നതിനു മുന്നേ എന്തെങ്കിലും പരിശോധനയുടെ സമയത്ത് പ്രശ്നം വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുകളാവും പിന്നെ ഒരാൾ ഒരാൾ കാരണം നമ്മുടെ മുഴുവൻ പേരുടെയും ട്രിപ്പൊന്നും വേണ്ടെന്നു വെയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എല്ലാം ക്ലിയർ ആണെന്ന് എല്ലാവരും ഉറപ്പാക്കണം എല്ലാത്തിൻ്റേയും കോപ്പി എല്ലാവരുടേയും കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം ഇനി കറക്റ്റ് സമയത്ത് പോകുന്നതിൻ്റെ ധൃതിയ്ക്ക് എന്താണ് ബഹളം വെച്ച് പാസ്പോർട്ട് എടുക്കാതെയൊന്നും ആരും പോയേക്കരുത് കൃത്യമായിട്ട് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെന്ന് എല്ലാവരും ഉറപ്പിക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ എന്നാ യാത്രയ്ക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും പാസ്പോർട്ട് മാത്രമല്ല അതുപോലെ ബാക്കി ടിക്കറ്റുകളും ബാക്കി എന്നാ ഐഡൻ്റിറ്റി കോപ്പീസും എല്ലാവരുടെയും കൃത്യമായിരിക്കണം കുട്ടികളുടെ എല്ലാം കൂടെയും ചാച്ചയും മമ്മിയോ വല്ലതും എടുക്കണം അതെല്ലാം ഒന്നിച്ചുതന്നെ വയ്ക്കണം എന്നാലേ എല്ലാം ശരിയാവുകയുള്ളൂ പിന്നെ നമ്മൾ വിളിക്കാനുള്ളവരെയൊക്കെ നമ്മൾ ചെന്ന് ചെല്ലുമ്പം മുതലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിനെ ഒന്നുകൂടിയും വിളിക്കണം നമ്മൾ ചെന്ന് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളവരുടെ കാര്യങ്ങളും അത് കൊണ്ടുപോകാനുള്ളവരെക്കുറിച്ചും അവരുടെ കാര്യങ്ങളുമൊന്ന് അതെങ്ങനെയാണെന്ന് കൃത്യം ഒന്നുകൂടി വിളിച്ച് വയ്ക്കണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമായിരിക്കും സാഹചര്യമായിരിക്കും അപ്പോൾ എല്ലാം കൃത്യമായിത്തന്നെ നടക്കാൻ വേണ്ടി എന്താണ് ആ ടൂർ ഓപ്പറേറ്റേഴ്സിന് ഒരു ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ വിളിക്കുന്ന കാര്യം ഓർക്കണം എല്ലാ ടിക്കറ്റും പിന്നെ എല്ലാ പിന്നെ സർട്ടിഫിക്കറ്റുകളും റെക്കോർഡുകളും പാസ്പോർട്ടും എല്ലാ കാര്യം കൃത്യമാണെന്നും എല്ലാത്തിൻ്റേയും കോപ്പിയുണ്ടെന്നും എല്ലാവരുടെയും എടുത്തിട്ടുണ്ടെന്നും ഓർക്കണം പോയിട്ട് തിരിച്ചുവരാൻ പറ്റത്തില്ല നമ്മൾ സാധാരണ പോകുന്നപോലെ അല്ല വേറെ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഫ്ലൈറ്റിനാണ് പോകുന്നത് നമ്മുടെ ട്രിപ്പ് കുളമാവാതിരിക്കാൻ വേണ്ടി എല്ലാം കൃത്യമാണെന്ന് എല്ലാവരും ഉറപ്പിക്കണം കൃത്യത കൂടിക്കൂടി അവസാനം ഒന്നും ഇല്ലാതാവരുത് എല്ലാം കൃത്യമായിട്ടാണോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ബുക്ക് ചെയ്തിരിക്കുന്ന കാര്യം കൃത്യമാണോയെന്നുംകൂടി ഓപ്പറേറ്റേഴ്സിനെ വിളിക്കണം പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുംകൂടി അവരെയൊന്ന് വിളിച്ചിട്ട് ചോദിക്കണം എവിടെയാണ് ഫുഡെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെന്നും അതെല്ലാം കൃത്യമാണോയെന്നുംകൂടി ചോദിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് സെറ്റാക്കണം പിന്നെയുള്ളത് എല്ലാവരും എല്ലാം എല്ലാ കൃത്യ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുണ്ടാക്കണം ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞിട്ട് അതെടുത്തില്ല ഇതെടുത്തില്ലായെന്നൊന്നും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ഓർത്ത് കൃത്യം തന്നെ എടുത്തുകൊള്ളണം മെഡിസിൻ എടുക്കുന്ന കാര്യമൊക്കെ പ്രത്യേകം എടുത്തുകൊള്ളണം മെഡിസിൻ വേണ്ടവർ പിന്നെന്താണ് എല്ലാം ക്രമത്തിലാണെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യണം എല്ലാവരും നന്നായിട്ട് ചെയ്യണം ശ്രദ്ധിച്ചു ചെയ്യണം ഒന്നും ഒരാളും ഒരു കാര്യവും മിസ്സായിപ്പോവരുത് എല്ലാം കൃത്യമായിട്ടുണ്ടായിരിക്കണം പിന്നെ അവിടെ പാസ്പോർട്ടിലെ എല്ലാവരുടേയും പേര് ഐഡൻ്റിറ്റി കാർഡിലെ പേരും പാസ്പോർട്ടിലെ പേരും കറക്റ്റ് ആണ് അതിന് കുഴപ്പമൊന്നും ഇല്ലായെന്ന് വെരിഫിക്കേഷന് വന്നപ്പോൾ എല്ലാം ചെക്ക് ചെയ്തതാണ് എന്നാലും ഒന്നുംകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത് കറക്റ്റാണോയെന്ന് പിന്നെ ഫോട്ടോ കോപ്പി എടുക്കുന്ന കാര്യം അത് എല്ലാവരുടേയും കയ്യിൽ ഓരോ കോപ്പി വേണം ഇനി എല്ലാവരുടേയും കയ്യിലും എല്ലാത്തിൻ്റെ ഓരോ കോപ്പി വയ്ക്കുന്നത് നല്ലതാണ് കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടന്ന് നമുക്ക് കൊടുക്കണമെങ്കിൽ എല്ലാം സെറ്റായിട്ടാണോയെന്നൊന്ന് നോക്കണം അപ്പോൾ എല്ലാം റെഡിയല്ലേ സെറ്റല്ലേ